മലയാള ഭാഷയുടെ സവിശേഷതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മലയാളികൾക്ക് വളരെ എളുപ്പമുള്ളതും സംസാരിക്കുവാനും എഴുതുവാനും വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതും എന്നാൽ മറ്റ് രാജ്യക്കാർക്ക് മറ്റ് ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന രാജ്യക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നതും എഴുതുവാനും ബുദ്ധിമുട്ട് തോന്നതുമായ ഒരു ഭാഷയാണ് മലയാള ഭാഷ മലയാളം എന്ന് പറയുന്ന നമ്മുടെ ഭാഷയിൽ ധാരാളം അർത്ഥങ്ങൾ നാനാർത്ഥങ്ങൾ പര്യായപദം പദങ്ങൾ അതുപോലെ നമ്മുടെ കവിതാസമാഹാരങ്ങളിൽ വരുന്ന അതിൻ്റെ ഈ തരംതിരുവുകൾ ഇതെല്ലാം മലയാളത്തിൻ്റെ സവിശേഷതയാണ് മറ്റുള്ള ഭാഷകളിൽ ഇത്ര അർത്ഥം അർത്ഥം വ്യക്തമായിട്ടുള്ള വാക്കുകളും ഉച്ചാരണങ്ങളും വരുന്ന ഭാഷകൾ വേറെ ഇല്ല്യന്നാണ് എൻ്റെ അഭിപ്രായം മലയാള ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകത്തിൽ വളരെയധികം അക്ഷരങ്ങൾ വാക്കുകളും അക്ഷരങ്ങളും അധികമുള്ളതും വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞതും എഴുതാനായാലും ഉപയോഗിക്കാനായാലും ബുദ്ധിമുട്ട് നിറഞ്ഞതുമായ ഭാഷകൾ ഈ മലയാളത്തിനേക്കാൾ അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള ഭാഷകൾ വേറെ ഇല്ലെന്ന് വേണം പറയാൻ മലയാളത്തിലെ ഓരോ അക്ഷരങ്ങളും സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങൾക്കും അതിൻറ്റേതായ അർത്ഥങ്ങളും അതിൻ്റെ ഉച്ചാരണ രീതിയിലും അതിൻ്റെ അർത്ഥങ്ങളിലും എല്ലാം വളരെയധികം ഭംഗിയും അഥവാ അഥവാ വളരെയധികം പ്രാധാന്യവും അർഹിക്കുന്നതാണ് ഇത്തരത്തിലുള്ള മലയാള ഭാഷകളിൽ എഴുതുന്ന കവിതാസമാഹാരങ്ങൾ കഥകൾ ഇതെല്ലാം വളരെയധികം രസത്തോട് കൂടി കേൾക്കാൻ സാധിക്കുന്നതാണ് മലയാള ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരുപാട് നാടകങ്ങൾ ഗാന രചന രചനകൾ ഇതെല്ലാം വളരെ അർത്ഥവത്തായതും മനസ്സിനും കുളിർമയെകുന്നതുമായ ഒരുപാട് ഗാനം ശകലങ്ങളും ഒരുപാട് കവിതകളും ഒരുപാട് സാഹിത്യ സമാഹാരങ്ങളും മലയാളത്തിലുണ്ട് ഇത്രയും ഭംഗിയായി മലയാള ഭാഷയെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ പോലെ ഒരു ഭാഷകളുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം മലയാള ഭാഷ എന്നും ഈ ഇനിയും ലോകത്ത് ഇപ്പോൾ ഏത് ഭാഗത്തും മലയാളികളാണ് കൂടുതലുള്ളത് അതുകൊണ്ട് മലയാള ഭാഷ ഇപ്പോൾ ഒരു വിധം എല്ലാവിടത്തേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാള ഭാഷയുടെ ഈ ഇത്രയും ശക്തിയേറിയ ഒരു ഭാഷ വേറെ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം മലയാള ഭാഷയിലുള്ള കവിതകളുടെ അർത്ഥങ്ങളും കഥകളുടെ തത്വങ്ങളും അതിൻ്റെ ഗുണപാഠങ്ങളുമെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് എന്തെന്നറിയാത്ത സന്തോഷങ്ങളാണ് ഉള്ളത് മനസ്സിന് വളരെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വളരെ അർത്ഥവത്വം നൽകുന്ന ഒരുപാട് നന്മകൾ നൽകുന്ന ഗുണപാടങ്ങൾ നൽകുന്ന ഒരുപാട് കവിതകളും കഥകളും ആത്മകഥകളും എല്ലാം മലയാള ഭാഷയിലുണ്ട് അതുകൊണ്ട് മലയാള ഭാഷ വളരെയേറിയ സവിശേഷതയുള്ളൊരു ഭാഷയാണ്